എൻ്റെ സെക്കൻഡ് പ്രൊഡക്റ്റ് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാത്തിങ് സോപ്പാണ് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ബാത്തിങ് സോപ്പൊക്കെ നമുക്ക് നമ്മുടെ സ്കിന്നക്കെ ഡ്രൈ ആകുന്നതും അതായത് അങ്ങനെ ഉള്ളൊരു പിന്നെ ഇത് ഇത് പിന്നെ പ്രൊഡക്ട് തന്നെയാണ് നമ്മുടെ സോപ്പ് അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്കിന്നാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ഏത് ഭാഗങ്ങളിലാണെങ്കിലും ഡ്രൈ ആകും അതുപോലെ തന്നെ സോപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കെമിക്കലും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സംഭവാണ് കൂടുതലായിട്ടത് യൂസ് ചെയ്യാതിരിക്കുക അതാണ് ഏറ്റവും നല്ലത് കാരണം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള സൈഡ് എഫക്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ യൂസ് ചെയ്യാതിരിക്കുന്നത് വളരെ കുറവാണ് പിന്നെ അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കില് നമ്മള് മൈൽഡ് സോപ്പ്കള് കാര്യങ്ങള് അതായത് കുട്ടികളുടെ ബേബി സോപ്പ് ഏതാ ഏതാണെങ്കിലും കെമിക്കലാ പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറുപയറ് പൊടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കില് നമുക്ക് ശരീരത്തിന് അങ്ങനത്തെ പ്രശ്നങ്ങള് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ നല്ലൊരു പിന്നെ ഇത് തന്നെയാണ് പിന്നെ ചെറുപയറ് പൊടിയൊക്കെ യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര മടിയായിരിക്കും അതിൻ്റെ സ്മെല്ല് കാര്യങ്ങളൊക്കെ അപ്പെന്ത് ചെയ്യുക ഫേസ് വാഷ് കാര്യങ്ങള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് മുഖം ക്ലീൻ ചെയ്യാം ശ്രമിക്കാം കൂടുതലായിട്ടും